മൃഗങ്ങളെ മേയ്ക്കാന് വേണ്ടിയിട്ട് ഇപ്പം ഉള്ള സ്ഥലങ്ങൾ പച്ചപ്പ് വളരെ കുറവാണ് പണ്ടുള്ള സ്ഥലം പണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും പച്ചപ്പ് വളരെ കൂടുതലായിരുന്നു ഇന്ന് അതിന്റെ ഒരു ഇത് വളരെ കുറവാണ് പണ്ട് നമ്മൾള് ഒരു പശുവിനെ അന്യ ഒരു സ്ഥലത്ത് ഒരു പറമ്പിൽ കൊണ്ട് കെട്ടി കഴിയുമ്പോഴത്തേക്കും അതിന് വൈകുന്നേരം വരെ നിന്ന് കഴിക്കാന് വേണ്ടിയിട്ട് അത് പിറ്റേ ദിവസത്തേക്കൊക്കെ ഉള്ള അവശ്യത്തിനുള്ള പച്ചപ്പ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് വളരെ വളരെ കുറവാണ് അത് ഇപ്പം ഇന്ന് രാവിലെ ഒരെണ്ണത്തെ കൊണ്ട് കെട്ടി കഴിഞ്ഞാൽ അതിന് ഉച്ച വരെയുള്ളത് അതിന് അവി ടെ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കത്തില്ല അതിനെയൊക്കെ കെട്ടഴിച്ച് വിടേണ്ടതാണ് അതിന് വേണ്ട സാധനങ്ങള് എവിടെ ഉണ്ടെന്നു വച്ചാൽ അത് തന്നെ പോയി കണ്ടു പിടിക്കാന് വേണ്ടി കെട്ടഴിച്ചു വിടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിന് പല പല കാരണങ്ങളുണ്ട് കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട് കാലാവസ്ഥ ഇപ്പം മാറിയും മറിഞ്ഞുമാണ് കാലാവസ്ഥ എപ്പോഴാണ് എന്താണ് വരിക എന്നൊന്നും പറയാന് പറ്റത്തില്ല ഇപ്പം നമ്മൾ നല്ല ചൂടുള്ളത് സമയം അല്ല അത്യാവശ്യം നല്ല തെളിഞ്ഞ ഒരു കാലാവസ്ഥയിൽ നമ്മൾ നമ്മുടെ മൃഗത്തെ പശുവിനെ ആടിനെ എന്തിനെയാണെങ്കിലും മേയ്ക്കാന് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞ് എവിടെ എങ്കിലും കൊണ്ട് സുരക്ഷിതമായി നിര്ത്തി കഴിഞ്ഞാൽ എപ്പോഴാണ് മഴയോ ഇടിയോ വെള്ളപ്പൊക്കമോ എപ്പോഴാണ് വരുന്നത് എന്നൊന്നും പറയാന് പറ്റാത്ത ഒരു അവസ്ഥയാണ് പിന്നെ വെള്ളം പൊങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ പുല്ലൊക്കെ ചീഞ്ഞ് കഴിയുമ്പോഴത്തേക്കുള്ള അവസ്ഥ അത് വളരെ ദയനീയമാണ് അതുപോലെ തന്നെ ഈ അസുഖങ്ങളൊക്കെ പരക്കുന്നുണ്ട് അസുഖങ്ങൾ ഇപ്പം മൃഗങ്ങൾ എവിടെ നമുക്ക് പണ്ട് എവിടെയും കൊണ്ട് വച്ച് നിർത്തിക്കഴിഞ്ഞാൽ അതുങ്ങൾ ഒരു അതുങ്ങൾക്ക് ഒരു സേഫ്റ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് തീരെ ഇല്ല അതുങ്ങൾ എന്താണ് തിന്നുന്നതെന്നോ തിന്നു കഴിഞ്ഞാലുള്ള അതുങ്ങളുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കുമെന്നോ പറയാന് പറ്റത്തില്ല പുല്ലുകള്ക്കൊക്കെ ഇപ്പോൾ വളരെ വിഷാംശങ്ങൾ കാണും പ്ലാസ്റ്റിക്കുകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് പ്ലാസ്റ്റിക് മനുഷ്യർ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറ് ഇതെല്ലാം വലിച്ച് എറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ